ആ ഹലോ കേൾക്കുന്നില്ലേ ആ പറഞ്ഞോളൂ എന്തായിരുന്നു അതെ അതെ കുട്ടിയുടെ അഡ്മിഷൻ കാര്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അഡ്മിഷൻ കാര്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണോ മാം വിളിച്ചതെന്ന് അറിയാനായിരുന്നു അതെ അപ്പോൾ ഡോണേഷൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആദ്യമേ അറിവുണ്ടോ അതോ ഇവിടെ ഡോണേഷൻ ഒരു ഇരുപത്തയ്യായിരം രൂപയാണ് ഒരു കുട്ടിക്ക് ഡോണേഷനായിട്ട് ഡോണേഷനിൽ ഫീയും ബസ്സ് ഫീയൊന്നും പെടുന്നില്ല അപ്പം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനും പേ ചെയ്യുകയാണെങ്കിൽ വേറെയാണ് അത് ഇതിലൊന്നും പെടുന്നില്ല കേട്ടോ ഡോണേഷൻ ഇരുപത്തഞ്ച് രൂപയാണ് രണ്ടുപേർക്ക് ആകുമ്പോൾ അമ്പതിനായിരം രൂപ ഡോണേഷൻ നേരത്തേ പേ ചെയ്യണം മുഴുവൻ പൈസയും പിന്നെ ട്യൂഷൻ ഫീയും ബേസ് ബസ്സ് ഫീയും മന്ത്ലി ഓരോ മന്ത്ലി നമ്മൾ പേ ചെയ്താൽമതി അത് ആ പത്ത് മാസത്തിനുള്ളിൽ കമ്പ്ലീറ്റ് ആക്കിയാൽ മതി നിർബന്ധം ഇല്ല ഫുൾ ഫുൾ തരാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തന്നോളൂ അതൊന്നും കുഴപ്പം ഇല്ല അങ്ങനെയാണ് പിന്നെ എക്സ്ട്രാ വരുന്ന അവർക്ക് കുറെ എക്സ്ട്രാ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് അത് എന്തെങ്കിലും ആണ് മക്കളെ നീന്തലുണ്ട് ഹോക്കി ഉണ്ട് ഷട്ടിൽ ഉണ്ട് അതിനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അതിന് വേറെ ഫീ കൊടുത്ത് അവരെ ചേർക്കാം ആ മകന് മക്കളുടെ പേരെന്താണ് അതെയോ ഓക്കെ അപ്പം ആരാണ് സെക്കൻഡ് സ്റ്റാൻഡേർഡിലോട്ടുള്ള കുട്ടി സെക്കൻഡ് സ്റ്റാൻഡേർഡിലോട്ട് ചേർക്കുന്ന കുട്ടിയുടെ പേരെന്താണ് ആ കുട്ടി ഇതിനു മുമ്പ് എവിടെയായിരുന്നു പഠിച്ചത് അതെയോ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് മാറ്റാൻ ഇവിടെ നല്ല കാലിബറായിട്ട് പഠിക്കുന്നുണ്ട് ഓ ഓ അതുശരി അപ്പം നിങ്ങൾ കുട്ടികളേയും കൂട്ടി പോര് നമ്മൾ ചേർക്കുന്നതിന് മുമ്പ് ചെറിയൊരു ടെസ്റ്റ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ആ ഒരു ചെറിയ ടെസ്റ്റ് ഉണ്ട് അത് കഴിഞ്ഞാൽപ്പിന്നെ കുഴപ്പം ഇല്ല കൊച്ചിനേയും കൊണ്ടുപോര് കേട്ടോ ആയിക്കോട്ടെ താങ്ക് യൂ